ഹലോ ആ ഹലോ ടീ ഷോപ്പ് ആ ടീ ഷോപ്പ് അല്ലേ ആ ആ കുറച്ച് ടീ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്തൊക്കെ തരം ടീ ആണുള്ളത് അവിടെ

ആ ആ നമുക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു ജൂൺ എട്ടാം തീയതി അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു കുറച്ച് ചായ വേണമായിരുന്നു രാവിലെ ഒരു എട്ടര മണി ആവുമ്പോഴത്തേനും എത്തിക്കാൻ പറ്റുമോ അ ഒരു പത്ത് സാധാരണ ചായ സാദാ ടീ പിന്നെ ഒരു അഞ്ച് കോഫി വേണം പിന്നെ ഒരു അഞ്ച് ആ അഞ്ച് മസാല ടീയും വേണം ആ ആ ആ ആ മധുരം മധുരം ഉള്ളത് ആ എല്ലാതും മധുരം ഉള്ളതാണ് കേട്ടോ വേണ്ടത് ആ ആ അപ്പോൾ അത് നമ്മൾ മഞ്ചേരി ടൗൺ ഹാളിന് അടുത്തൊരു ഓഫീസ് ഉണ്ട് വനിതാ ആ ഓഫീസ് അപ്പം അങ്ങോട്ട് എത്തിച്ചാൽ മതി അത് നിങ്ങൾ കൊണ്ടുവന്ന് തരുമോ അതോ നമ്മൾ ആരെങ്കിലും വന്നിട്ട് വാങ്ങിക്കണോ എത്തിക്കാം അല്ലേ ആ അതിൻ്റെ കൂ ആ രാവിലെ ഒരു എട്ടര എട്ടര മണി ആവുമ്പോഴത്തേനും ആണ് എത്തിക്കേണ്ടത് ആ ആ ആ പിന്നെ സെർവ് ചെയ്യാൻ ഉള്ള ഗ്ലാസും എല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ അതിൻ്റെ കൂടെ ആ ഉണ്ടാവും എത്തിക്കാം ആ ആ ആ ഓക്കെ ഓക്കെ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ചായയുടെ ആ ആ ആ ആ

ആ ആ അതെ അതെ അതെ ആ ആ അ ആ ഓക്കെ ഓക്കെ ശരി ശരി എന്നാൽ ശരി ആ ഓക്കെ